ആ ഹലോ ആ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അവിടെ കിട്ടുമോ ഉണ്ട് ഞാന് എന്റെയൊരു കൂട്ടുകാരനാണ് അവന് ഗള്ഫിലോട്ട് കൊണ്ടുപോവാനായിട്ടാരുന്നു ഒരു മൂന്ന് കിലോ വേണമായിരുന്നു ആ അത് ആ അതെ ആ അതെങ്ങനാണ് നിങ്ങൾ പാക്ക് ചെയ്ത് തരോ അതെങ്ങനാണ് അതിന്റെ അത് ഞാന് ചോദിക്കുന്നത് മൂന്ന് മൂന്ന് കിലോന്നുള്ളത് സെപ്രേയ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ സെപ് അതായത് ഓരോ കിലോ വീതം ആ സേഫ്റ്റിയായിട്ട് പാക്ക് ചെയ്യാൻ പറ്റുവല്ലേ ഹലോ ആ ആ എത്ര കിലോ കിലോയിക്കെത്ര കി വരും ഇരുന്നൂറ്റി മുപ്പത് ആ ഹാ മൂന്ന് ആ ശരി ശരി ആ അവരീ മൂന്ന് കിലോയെക്കെ എടുക്കുന്നത് കൊണ്ട് ആ ആ ഹാ ആ മൂന്ന് ആ മൂന്ന് പിന്നെ മൂന്ന് കിലോയെടുക്കുമ്പം വല്ല ഡിസ്ക്കൗണ്ട് കാര്യം ഇവർ അടുത്ത ഈ ജൂ ജൂലൈ ഓഗസ്റ്റ് മാസം ഒക്കെ അവർ അവധിക്ക് വരുന്നവരുണ്ട് ഇത് ആ അന്നേരം കൂടുതൽ വരും ആ ആ ആ ആ ആ ശരി ശരി അത് അല്ല ഞാന് ചോദിക്കുന്നത് ഡിസ്ക്കൗണ്ട് വെല്ലോം തരുമോന്നറിയനാണ് ചോദിച്ചത് ഡിസ്ക്കൗണ്ട് വെല്ലോം പറ്റത്തുള്ളൂ ആ ആ ആ ആ ആ ആ കൃത്യമായിട്ട് പറ്റത്തില്ല ആ പിന്നെയീ ഞാനെ എന്റെ ഞാനിനീം പറയാം ഇവിടുന്നൊരു മൂന്ന് കിലോമീറ്ററപ്പുറത്ത് പോയാൽ ആവശ്യാനുസരണം ഇവരിങ്ങനെ ചെയ്ത് അതായത് ഓഡറനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീ തോട്ടത്തീന്ന് തന്നെ തേങ്ങായെടുത്ത് ആട്ടിച്ച് വില്പനയാക്കി അതിങ്ങനെ ചൊ അതും ചക്കിലാട്ടിയ വെളിച്ചെണ്ണെന്നെക്കെ പറഞ്ഞ് അവർ ചെറിയൊരു പരസ്യവൊക്കെ കൊടുക്കാറുള്ളൂ അവിടെ പക്ഷേ ഇരുനൂറ്റിപ്പത്ത് രൂപയെ ഉള്ളൂ അതാണ് ഞാന് ചോദിച്ചത് വിത്യാസം എന്നാ ഉണ്ടെന്നെച്ചാൽ രണ്ടും തമ്മില് നിങ്ങളിപ്പം ഇരുനൂറ്റിമുപ്പതല്ലെ എന്നോട് പറഞ്ഞത് ആ ആ ആ ആ വാ ഓ പുറത്തൂന്ന് പുറത്തൂന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ പൊട്ടിച്ച് അല്ലെ ആ ആ ശരി ശരി അങ്ങനെ ഒക്കെയാണ് ആ ആ അത് ശരി ശരി കൊണ്ട് പോവാനുണ്ട് ആ ആ ആ ഹാ ആ നിങ്ങളേതായാലും ആ എങ്കിപ്പിന്നെ നിങ്ങളത് ലീക്ക് ചെയ്യാതെയൊക്കെ പാക്ക് ചെയ്ത് തരുവല്ലോ അങ്ങനെ തരും ആ ശരി ആ ശരി ആ ആ ഓക്കെ ഓക്കെ ആ ഞാനങ്ങനുണ്ട് ആ ആ ഞാന് പറഞ്ഞ ആളിനെ ഞാനങ്ങോട്ട് വന്നോളാം ഞാൻ ഈ നമ്പറി വിളിച്ചാൽ മതിയല്ലോ ഈ നമ്പറീ വിളിച്ചാൽ ആ ആ ആ അതെ അതെ അടുത്ത മാസത്തേയ്ക്ക് മതി ആ ആ ആ മേടിച്ച് വെക്കണ്ട ആ ശരി ശരി ആ ആ ശരി ശരി ഓക്കെ ഏ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇത് കനയ്ക്കത്തൊന്നും ഇല്ലല്ലോ കനയ്ക്കത്തൊന്നും ഇല്ല ആ ആ ഞാൻ ചോദിക്കട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ആ ആ ആ ഞാനെന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ നെല്ലില്ലേ നമ്മുടെ കൊയ്തെടുക്കുന്ന നെല്ല് നെല്ല് അതിനകത്തിട്ട് വെച്ചാൽ കനക്കത്തില്ലെന്ന് പറയും അങ്ങനെ ആ അങ്ങനെ ചെയ്യാറില്ല ചെയ്യാറില്ല ചെയ്യാറില്ല ആ ആ അത് ശരി ശരി അന്നേരം ആ ആ ആ ആ ആ ആ ആ ശരി ആ അങ്ങനുണ്ടേല് നല്ല ഒ ഞാനാ ഒരു ഏതേലും ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഞാന് വന്നോളാം ഈ നമ്പറി തന്നെ വിളിച്ചോളാം ഞാൻ നാളെ ഞങ്ങളാ ജംഗ്ഷനിൽ വരുമ്പോൾ എനിക്കൊരു ഇത് മാ ഗൂഗിള് മാപ്പൊന്നിട്ട് തരണം ആ ജന് ജന് ആ ഞാനന്നേരം വിളിച്ചോളാം ഞാനന്നേരം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ